ഇപ്പോൾ നമ്മള് പറയുവാണെങ്കിൽ കൂടുതലായിട്ടും കുട്ടികളൊക്കെ തിരഞ്ഞെടുക്കുന്നതിപ്പോൾ ആർക്കിടെക്ട് ഫീല് ഫീൽഡ് പിന്നെ നേഴ്സ് ഫീൽഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതലും പിന്നെ ബയോടെക്നോളജി അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും എല്ലാവരും നോക്കുന്നത് പിന്നെ ഐ ഐ ടി ഐ റ്റി ഐ അങ്ങനത്തെ സ്കൂളുകളിലൊക്കെയാണ് തൊഴിലധി അധിഷ്ഠിത കോഴ്സുകളൊക്കെയാണ് കൂടുതലാൾക്കാരും നോക്കുന്നത് കാരണം ഇന്നത്തെ സമൂഹത്തിലിപ്പോൾ അത്യാവശ്യം നല്ല ജോലിയൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലുള്ള ഫീൽഡുകളിലൊക്കെ ട്രൈ ചെയ്താലെ കിട്ടുകയുള്ളു എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാവരും അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് പോവുകയാണ് സാധാരണ ചെയ്തുവരുന്നത് അപ്പോൾ എല്ലാവരും തന്നെ എന്താ പറയുക ഇത്തരത്തിലുള്ള ഫീൽഡുകളിലേക്ക് പോകുമ്പോൾ ജോലി സാധ്യത കൂടുതലാണ് ആ അപ്പോൾ എല്ലാവരും തന്നെ നല്ല രീതിക്ക് ജോലിക്ക് പോവുകയും നല്ല മാർക്ക് ചെയ്യാൻ നല്ല മാർക്കൊക്കെ മേടിക്കാൻ പരിശ്രമിക്കുകയൊന്നും ചെയ്യാണ്ട് തന്നെ എളുപ്പത്തിൽ ജോലി കിട്ടുന്നത് കൊണ്ട് എന്താ പറയുക അത്യാവശ്യം നല്ല രീതിയില് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ ഐ ഐ ടി ഐ റ്റി ഐ പിന്നെ എന്താ പറയുക അങ്ങനത്തെ കോളേജുകളിലൊക്കെ പോയി അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആർക്കിട്ടെക്റ്റ് ഫീൽഡ് അങ്ങനെ നേഴ്സിങ് അങ്ങനത്തെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പോൾ സ്വാ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടില് ജോലി ചെയ്യാൻ അങ്ങനെ അധികം ആരുമില്ല എല്ലാവരും പുറമെ തന്നെയുള്ള ജോലികളാണ് കൂടുതലും ആഗ്രഹിക്കുന്നതും പോകുന്നതുമൊക്കെ സാലറി ബേസിലാകുമ്പോൾ കേരളത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പം നോക്കുന്നതും